ഹലോ ആ ആരാ ആണ് ആണെന്ന് ആരാ പേരെന്തുവാണ് പേരെന്താണ് ആ ഹ ഹ ഹ എന്തായിരുന്നു ചുരിദാറയിരുന്നോ ചുരിദാറാണോ ആ ആ ആ ആ ആ അത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ചെയ്തു കൊണ്ടിരിക്കുകയാണത് എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മതിയോ ആ എനിക്കൊത്തിരി വർക്കുകളുണ്ട് കേട്ടോ ഒത്തിരി ഇപ്പോൾ ഈ ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആയതു കൊണ്ടേ കുറേ വർക്കുകളുണ്ടെ ആ അതൊന്ന് അയച്ച് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇത്ര പെട്ടെന്നായതു കൊണ്ട് ചിലപ്പം അതിൻ്റെ അതിനകത്ത് ഇത്തിരി കുറച്ച് വർക്കുകളൊക്കെ കുറയ്ക്കേണ്ടി വരും അപ്പം പെട്ടെന്ന് പിന്നെ അതുപോലെ ഒത്തിരി കല്യാണ സീസണൊക്കെ ആയതു കൊണ്ടെ ഒത്തിരി തയ്ക്കാനൊക്കെ ഉണ്ട് എനിക്കിപ്പം നടുവിനൊക്കെ പ്രശ്നമാണ് ഞാനന്നേ പറഞ്ഞില്ലായിരുന്നോ ആ ആ ഞാൻ നോക്കാം മാക്സിമം പരമാവധി നോക്കാം പിന്നെ തയ്ച്ചു തരാനായിട്ട് നോക്കാം കെട്ടോ ആ ആ അതു ഞാൻ ആ ചെയ്യാം ചെയ്യാം മ്മ് ആ ആ ആ ആ ഒത്തിരി വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പിത്രയും വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പിടിക്കും അപ്പം റേറ്റ് ഇപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യുകയല്ലേ അപ്പോൾ റേറ്റ് പിന്നെ നമ്മൾ പറയുന്ന റേറ്റ് ചെയ്യ് പറയേണ്ടി തരേണ്ടി വരും

ആ ഫംഗ്ഷൻ അത് പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാം പക്ഷേ റേറ്റിലൊന്നും കുറയ്ക്കാൻ ഒക്കത്തില്ല കേട്ടോ

ആ അതു ഞാൻ നോക്കാം പരമാവധി നോക്കാം കേട്ടോ അത് ഞായറാഴ്ച തന്നെ തരാം ആ ആ ആ പിന്നെ ഇറക്കമൊക്കെ എങ്ങനെയാണ് അത് അതുപോലെ തന്നെ മതിയല്ലോ വണ്ണമൊക്കെ വണ്ണമൊക്കെ അത് ആ ആ ഇപ്പം ഡെകറേഷൻ കുറേ ആയി കേട്ടോ റേറ്റ് കൂടുമേ അതിപ്പോൾ അഞ്ഞൂറിൽ കൂടുതലാകും കേട്ടോ നാന്നൂറൊക്കെ ആയിരുന്നു വാങ്ങിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒത്തിരി പിന്നെ മോഡലൊക്കെ ഒത്തിരി കൂടിയുണ്ട് അഞ്ഞൂറിൽ പുറത്തൊക്കെ ആകും ആ നോക്കാം ഞാൻ ആ പരമാവധി നോക്കാമേ നമ്മൾ പിന്നെ അങ്ങനെ കോളിറ്റി കുറഞ്ഞതൊന്നും നമ്മളിട്ട് തൈക്കാറില്ല കേട്ടോ എല്ലാം നല്ല അങ്ങനെ പ്രശ്നമുള്ളതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിട്ട് ആ ആ ആ ആ ആ ഓ ആ ഞായറാഴ്ച വാ എന്തായാലും കേട്ടോ രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാ ഓക്കെ ആ ആ രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാ